ഹലോ ഒരു ഓട്ടം പോകണമായിരുന്നു ആ എനിക്ക് ഇപ്പോൾ കോഴിക്കോട് ഒരു മുട്ടായി തെരുവിലേക്ക് ആയിരുന്നു പോണ്ടെ ആ ചാർജ് ഒന്നും കുഴപ്പമില്ല എനിക്ക് പെട്ടെന്ന് എത്തിയാൽ മതി ഞാൻ ഇപ്പോൾ അടിവാരം ആ അതെ അതെ മിട്ടായി തെരുവിൽ നിന്ന് പിന്നെ കുറച്ച് ദൂരം പോകാനുണ്ട് ഒന്ന് മലപ്പുറത്തേക്കൊക്കെ പോകേണ്ടി വരും ആ അവിടെയും കൂടി പോയിട്ട് വരാം ആ ഓക്കെ ഓക്കെ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ വരുമോ ആ എന്നാൽ ആ ഓക്കെ ഓക്കെ ഞാൻ ഉണ്ട് വൈഫ് ഉണ്ട് ആ ഓക്കെ ഓക്കെ

അത് നമുക്ക് അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഇതാക്കാം ആ അതെ അതെ ഇയ്യോ ആ അത്രയേയുള്ളൂ അത്രയേയുള്ളൂ അവിടെ എനിക്ക് ഒരു വൺ അവറിനുള്ളിൽ എത്തിയാൽ മതി ആ അതെ അതെ ഇത് അതോ അതോ ഹാഫ് അവറിനുള്ളിൽ എത്തിയാൽ മതി ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ